ഹലോ നമസ്കാരം വൈദ്യുതി ബോർഡല്ലേ എനിക്ക് ഈ തവണ വന്നിരിക്കുന്ന ബില്ലിൽ ഒരു നേരിയ ബില്ല് വർദ്ധനവുണ്ട് അതിൻ്റെ അതിനെക്കുറിച്ച് അറിയാനാണ് വിളിച്ചത് ആ പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്കറിയാനുള്ളത് ആ അത് യൂണിറ്റ് അധികമായിട്ടുണ്ട് മാത്രമല്ല എനിക്കിത് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതിന് ഞാൻ വേറെയെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും നിങ്ങൾ വൈദ്യുതി കുറച്ച് ഉപയോഗിക്കുക രാത്രി കാലങ്ങളിലധികം കറണ്ട് ഉപയോഗിക്കാതിരിക്കുക ഏ സിയും ഫ്രിഡ്ജ് പോലുള്ളത് കുറവ് ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് സാറേ ഞാൻ ആ ആ ഒരു സോളാർ പാനൽ ഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ നല്ല കാര്യം അതിന് ഗവൺമെൻ്റിൻ്റെ സബ്സിഡിയോടുകൂടെ നിങ്ങൾക്ക് സോളാർ പാനൽ കിട്ടുന്നതാണ് നിങ്ങളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിവ് അതിനെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വൈദ്യുതി ബോർഡിൽ വന്ന് എ ഇനെക്കണ്ട് ആ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ സാറേ ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ല നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി അത് കൊണ്ടു വന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയുന്ന ഡോക്യമെൻസ് റെഡിയാക്കിയാൽ മതി ഓക്കെ സാറേ